ഹലോ സാർ ദയവുചെയ്ത് എന്നോടു ക്ഷമിക്കണം ഞാൻ കുറച്ചുമുന്നേ നിങ്ങളെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഞാൻ ആഹാരം ഓഡർ ചെയ്തിരുന്നു ഞാനെന്താ ചെയ്തുപോയാൽ തെറ്റെന്നു പറഞ്ഞാൽ ഞാനാ വിലാസം കൊടുത്തതിൽ എൻ്റെ വിലാസം തെറ്റായിരുന്നു അതിൽ എൻ്റെ വീടും അഡ്രസ്സും മാറ്റിയാണ് ഞാൻ കൊടുത്തിരുന്നത് ആ വിലാസത്തിൽ ഞാൻ പണ്ട് താമസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അവിടെയല്ല താമസിക്കുന്നത് ആ ഒരോർമ്മയിലാണ് ആ വിലാസം നൽകിയിരുന്നത് പഴയതിൽ തന്നെ കിടന്നത് കൊണ്ട് എനിക്കത് മാറ്റാൻ സാധിച്ചില്ല എൻ്റെ പുതിയ വിലാസം ഞാൻ താഴെ കൊടുത്തിരിക്കുന്നു അതനുസരിച്ച് നിങ്ങൾ എൻ്റെ ഭക്ഷണസാധനങ്ങൾ അങ്ങോട്ടയയ്ക്കുക